വയനാട് ജില്ലയില് വളരുന്ന പ്രധാന വിളകൾ ഏതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പി കുരുമുളക് ഇഞ്ചി പിന്നേ അങ്ങനെ പലതും ഉണ്ട് അതായത് കരിമ്പ് കരിമ്പൊക്കെ ഇവിടെ വളര വളരെ കുറവാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇത് വച്ച തേയില തേയില ഒക്കെ വയനാട് ജില്ലയില് ഒരുപാട് ഉണ്ട് അത്പോലെ കാപ്പിയും മുളകൊക്കെ നമ്മുടെ ജില്ലയിൽ ഒരുപാട് ഉണ്ട് ഇവിടെ നിന്നാണ് കൂടെ കുറെ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ഒക്കെ ചെയ്ത് പോകുന്നത് പിന്നേ പിന്നെ കാപ്പിക്കും മുളകിനുമാണ് ഇപ്പോൾ കൂടുതലും വിപണിയില് കൂടുതല് ആവശ്യം വരുന്നത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുരുമുളക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു കാലാവാസ്ഥ അതായത് കാപ്പി കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ടിണ്ടെങ്കില് കുരുമുളക് അത് പിന്നെ നമ്മള് മരത്തിൽ ഇങ്ങനെ വള്ളികളിലാണ് കുരുമുളക് ഉണ്ടാവുക അത് പറിക്കും അത് പറിച്ച് ഉണക്കിയിട്ടാണ് നമ്മള് കടകളില് കൊടുക്കുക അത് നമ്മള് പറിക്ക് പറിച്ച് കഴിഞ്ഞിട്ട് ആത് മെതിച്ച് അത് ഉണക്കും ഉണക്കിയതിന് ശേഷമാണു നമ്മള് കടയില് കൊടുക്കുക കാപ്പി അത്പോലെ തന്നെ നമ്മള് കാപ്പി പറിച്ച് ഉണക്കിയിട്ടാണ് നമ്മള് കടകളിലേക്ക് കൊടുക്കുക അപ്പോൾ ആണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് കിട്ടുക